ഞാൻ ഓർഡർ ചെയ്തിട്ട് ഒരു ബാഡ് റിവ്യൂ ഇട്ട ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഫേസ് ക്രീമായിരുന്നു യൂട്യുബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിൽ ഒക്കെ റിവ്യൂ കണ്ടിട്ടായിരുന്നു ആ പർച്ചെയ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെ ആയിരുന്നു തൗസൻഡ് സംതിങ് ഒക്കെ റേറ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഒരു ഓഫർ ടൈമിൽ മേടിച്ചത് കൊണ്ട് തന്നെ ഒരു ഫൈവ് ഹൺഡ്രഡ് സംതിങ്ങിന് എനിക്ക് ആ പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഓർഡർ ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പം തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി തുടങ്ങി ഒരു വൺ വീക്കിൽ ഒക്കെ എൻ്റെ സ്കിൻ ഭയങ്കര ബ്രൈറ്റനിങ് ആയി തോന്നി പിന്നെ ഒരു ഗ്ലാസ് സ്കിൻ പോലെയൊക്കെ ആയി ഇപ്പം എല്ലാവരും എക്സ്പെക്റ്റ് ചെയുന്നത് ഗ്ലാസ് സ്കിൻ ഒക്കെ വേണം എന്ന് ആണല്ലോ അപ്പം അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി അപ്പോൾ ഞാൻ ഭയങ്കര ഭയങ്കര ഹാപ്പിയായി തുടങ്ങി ഞാൻ ബാക്കിയുള്ളവർക്ക് ഒക്കെ അങ്ങ് റെഫർ ചെയ്ത് ബാക്കി ഉള്ളവരോട് ഒക്കെ പറഞ്ഞു തുടങ്ങി ഈ പ്രൊഡക്റ്റ് മേടിച്ചാൽ മതി അത് നല്ലതാണ് നല്ലതാണ് എന്ന് പക്ഷെ ഒരു രണ്ട് വീക്ക് അല്ലെങ്കിൽ ഒരു മൂന്ന് നാല് വീക്ക് ഒക്കെ കഴിഞ്ഞ് തുടങ്ങിയപ്പോൾ എൻ്റെ ഫേസിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് വരാൻ തുടങ്ങി ചെറിയ ചെറിയ ഡാർക്ക് സ്പോട്സ് വരാൻ തുടങ്ങി ചെറിയ ചെറിയ കുരുക്കൾ പൊന്തി തുടങ്ങി പിന്നെ എൻ്റെ ഫേസ് അങ്ങ് ഡള്ളായി പോയി പിന്നെ ഒക്കെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത് തുടങ്ങി ഞാൻ എന്നിട്ട് ഇതുവരെ എൻ്റെ ഫേസിൽ അങ്ങനെ കുരുകൾ ഒന്നും ഉണ്ടാവാറില്ല ഞാൻ ഒരു ബ്രൈറ്റനിങ്ങിന് വേണ്ടീട്ടാണ് ഞാൻ ആ സ്കിൻ ആ പ്രൊഡക്റ്റ് തന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇതിൻ്റെ ആഫ്റ്റർ എഫ്ഫക്റ്റ് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് നമ്മൾ അതിന് അഡിക്റ്റഡ് ആയി തുടങ്ങുമ്പോൾ അതിൽ ആഫ്റ്റർ എഫക്ട്സ് വരുന്നുണ്ടായിരുന്നു സോ ഞാൻ അതിൽ ഭയങ്കര ഡിസ്സാറ്റിസ്ഫൈഡ് തന്നെ ആയിരുന്നു